ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങൾ വളരെയധികം കൃത്യതയോടെയാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും നമ്മളുടെ റോഡുകൾ അതുപോലെയുള്ള മറ്റു സംവിധാനങ്ങളു ഏർപ്പെടുന്ന ചില വീഴ്ചകൾ കാരണം പലപ്പോഴും അത്തരം സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിക്കുവാൻ ആളുകൾക്ക് സാധിക്കാതെ വരുന്നുണ്ട് കൂടാതെ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ചില ശബ്ദ മലിനീകരണം അതുപോലെ തന്നെ വായു മലിനീകരണം ഇതിനൊക്കെ നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്